അ ഹലോ സാർ പറയൂ അതെ സാർ സാർ ആരാണ് അ പറയൂ സാർ ആ ഓക്കെ സാർ സാർ എന്തിനാണ് സാർ ഇപ്പം വിളിച്ചത് ആ ഒൺ ആ ഉണ്ട് സാർ ഉണ്ട് ആ ആ സാർ ആണെങ്കിൽ അത് ചെക്ക് എഴുതിത്തന്നാൽ മതി കേട്ടോ ചെക്ക് എഴുതുൻ സാർ ഒരു സ്പോട്ട് പറഞ്ഞാൽ മതി നമ്മൾ അവിടെ വന്ന് കളക്റ്റ് ചെയ്തോളാം ഓക്കെ സാർ അഡ് അഡ്വാൻസ് പത്ത് ലക്ഷം തന്നിരുന്നു പിന്നെ നമ്മൾ എല്ലാം കൂടെ നോക്ക അപ്പം ഇനി ഒരു ഇരുപത് ലക്ഷം രൂപ കൂടെ സാർ തരേണ്ടി വരും സാർ ആ ഓ മതി മതി അല്ല സാർ ഒരു സ്പോട്ട് പറഞ്ഞാൽ മതി നമ്മൾ അവിടെ വന്ന് വാങ്ങിച്ചോളാം കുഴപ്പമില്ല ആ വൈ നമ്മൾ വന്നോളാം സമയവും ഡേറ്റും കൂടെ പറഞ്ഞാൽ മതി പിന്നെ നമ്മുടെ ഫുഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാർ ഫുഡ് സർവിസ് ഒക്കെ തന്നേ സാറിന് ഏറ്റവും അ സാറിന് ഏറ്റവും ഇഷ്ടപ്പെ ആ അതെയോ സാർ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായിരുന്നു സാർ അതിൽ ആ അതെയോ പിന്നെ നമ്മുടെ വിൽ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ആ ഓക്കെ സാർ സാർ വിളിച്ചതിൽ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് തോന്നുന്നു ഫുഡ് ഒക്കെ ആദ്യമേ തീർന്നിരുന്നു പിന്നെ നമ്മൾ അടുത്തത് ഒന്നും കൂടെ കൊണ്ടുവരികയാണ് ചെയ്തത് ആ അത് അങ്ങനെയാണ് പിന്നെ നമ്മുടെ സർവീസ് ചെയ്ത ആൾക്കാരൊക്കെ എങ്ങനെ നല്ല ബിഹേവ് തന്നെയായിരുന്നോ സാർ ആ അത് അത് നമ്മൾ കൊടുത്തോളാം സാർ ആ പിന്നെ ആ എന്താണ് സാർ പറയൂ ആ നമ്മൾ ആ അത് നമ്മൾ അങ്ങനെയാണ് സാർ നമ്മൾ നല്ല നീറ്റ് ആയിട്ടേ എല്ലാം ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഡെക്കറേറ്റിങ്ങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാർ ഡെക്കറേഷൻ ഒക്കെ നല്ലതുപോലെ ആ അത് നമ്മൾ വളരെ അത് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞ് കൊണ്ടുവന്നതാണ് സാർ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാം നാച്ചുറൽ ആണ് സാർ അല്ലാതെ ഇങ്ങനെ പ്ലാസ്റ്റിക് പൂവൊന്നും ഇല്ല അതിൽ മൊത്തം ഒറിജിനൽ പൂവാണ് ഉള്ളത് അതൊക്കെ നമ്മൾ സാർ ആ സാറിന് വേണ്ടി മാത്രം നമ്മൾ പറഞ്ഞ് വാങ്ങിച്ചതാണ് ആ വിളി വിളിച്ചോ ആ വിളിച്ചോ വിളിച്ചോളൂ സാർ ആ പിന്നെ സാറിന് അവിടുത്തെ സർവീസും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എങ്ങനെ ഉണ്ടായിരുന്നു സാർ നമ്മൾ ആ അത് മൊത്തം ശരിയാക്കി എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു ആ ആ നമ്മൾ സ ആ ആ ആ ആ ആ അതെ അതെ പിന്നെ നമ്മുടെ സൂ സൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു സാർ ആ ഓക്കെ സാർ പിന്നെ സാർ നമ്മുടെ സു സൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ മൂന്ന് തരം സൂപ്പ് അവിടെ സെർവ് ചെയ്തിരുന്നു സൂപ്പ് എങ്ങനെ ആയിരുന്നു കൊള്ളാമായിരുന്നോ അതെയോ സാർ ഏത് സൂപ്പ് ആണ് സാറിന് ഇഷ്ടപ്പെട്ടത് ചിക്കൻ ആണോ അതോ വെജ് ആണോ ആ നമ്മൾ ആ എല്ലാവരും എല്ലാവർക്കും അതാണ് സാർ ഇഷ്ടപ്പെടുന്നത് നമ്മൾ വളരെ ഇതായിട്ട് ചെയ്യുന്ന ആ ഒരിതാണ് ആ അതേയോ സാർ ആ അത് നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ ഉണ്ടാക്കുന്ന ഒരു സൂപ്പ് ആണ് സാർ അതാണ് ഞാൻ പിന്നെ നമ്മുടെ ഐസ്ക്രീം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാർ ഐസ്ക്രീം ആ അതെ സാർ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ അതിൽ ഒരു ഇരുപതിൽ കൂടുതൽ ഐറ്റം ഉപയി കൊടുത്തിരുന്നു സാർ എന്നുവെച്ചാൽ വെറൈറ്റീസ് ആ പിന്നെ നമ്മൾ ഈ വേസ്റ്റ് ആ ആ പിന്നെ ഈ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ആ ഈ വേസ്റ്റ് എന്ത് ചെയ്യണം സാറേ ഇതിൽ കുറേ ഈ വേസ്റ്റ് വന്നിരുന്നു അതൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യണം ആ വരാം സാർ നമ്മൾ അത് അവിടെ സാർ നമ്മൾ അവിടെ വന്ന് സാറിന് കൈമാറാം സാർ സാർ അത് കൊണ്ട് ഡീക്കമ്പോസ് ചെയ്താൽ മതി ഓക്കേ സാർ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ സാറിന് അവിടെ ആൾക്കാരെ ആവശ്യം പോലെ ഉണ്ടല്ലേ ആ കുറേ പേർ ഉണ്ടായിരുന്നു ആ പിന്നെ ഓക്കെ സാർ ശരി പിന്നെ ആ ഇനി നമ്മൾ അടുത്ത ഇനി വല്ലതും ഉണ്ടെങ്കിൽ സാർ തീർച്ചയായിട്ടും വിളിക്കണം കേട്ടോ ആ നമ്മളെ പൂർണമായുള്ള സപ്പോർട്ട് കാണും ആ ഓക്കെ സാർ ശരി